നവജാതശിശുവിന് അതിൻ്റെ ആദ്യ വർഷത്തിൽ അനുഷ്ഠിക്കുന്ന വ്യത്യസ്ത ആചാരങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദുക്കളെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തെട്ട് കേട്ടെന്ന് പറഞ്ഞ ചടങ്ങാണ് ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ട് പിന്നെ കുട്ടീൻ്റെ അരയിൽ അരഞ്ഞാണം കെട്ടുന്നതാണ് ആ ഒരു ചടങ്ങ് എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് നടത്തുന്നൊരു പരിപാടിയാണ് പിന്നെ ഇരുപത്തെട്ട് കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് മാസത്തെ ചോറൂണാണ് നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലോ കാര്യത്തിലോ അമ്പ അമ്പലം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടു പോയിട്ടാണ് നമുക്ക് കുട്ടിക്കാദ്യമായിട്ട് ചോറൂണ് നടത്തുക പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വയസ്സിലത്തെ പിറന്നാളാണ് അത്രയാണ് നമുക്ക് നവജാത നവജാതശിശുവിന് വരുന്നത് ആദ്യ വർഷത്തിൽ അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ നമ്മൾ ഹിന്ദുക്കളുടെ കാര്യമാണെങ്കിൽ നമുക്ക് പക്ഷെ അത് ക്രിസ്ത്യാനികളാണെങ്കിൽ നമുക്ക് മാമോദിസയെന്ന് പറഞ്ഞിട്ട് അതായത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതായത് ഹസ്ബെൻറ്റിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മാമോദിസ കഴിഞ്ഞിട്ടാണ് അതായത് കുട്ടിയെ ക്രിസ്ത്യാനി ആക്കയെന്നുള്ളൊരിതാണ് നമുക്ക് മാമോദിസയെന്ന് പറഞ്ഞാൽ അതിൽ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പം അതാണ് പിന്നെ ക്രിസ്ത്യാനികളുടെ ചടങ്ങ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിംസിൻ്റെ അതേപോലെ തൊണ്ണൂറെന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു പരിപാടിയാണ് അതും മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അത് നടത്താറ്